ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണ സംവിധാനം ഇപ്പോൾ വളരെയധികം വെല്ലുവിളി നേരിടുന്നുണ്ട് മെ ഏറ്റവും പ്രധാനമായ വെല്ലുവിളി സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പല ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകളിലും ആവശ്യത്തിന് മരുന്നുകളില്ല കാരണം മരുന്നുകൾ വിതരണം ചെയ്തു കൊണ്ടിരുന്ന ഏജൻസികളെ അവ നിർത്തയിരിക്കുകയാണ് കാരണം അവർക്ക് വളരെയധികം പൈസ പഴയത് കൊടുക്കാനുണ്ട് അതെല്ലാം കിടക്കുന്നതു കൊണ്ട് അവർ പുതുതായിട്ട് മരുന്ന് ഇഷ്യു ചെയ്യുന്നില്ല അതുപോലെ ഏറ്റവും മേ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഏതു കാര്യത്തിനും പ്രൈവറ്റ് ആൾക്കാരെ പ്രൈവറ്റ് ഏജൻസിയെ ആൾക്കാർക്ക് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് കാരണം ഒരു എക്സ് റേ എടുക്കണമെങ്കിൽ അധികം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും എക്സ് റേ മഷീൻ തകരാറിലാണ് അപ്പോൾ അവരുടെ ഡോക്ടർ പറയും പുറത്തു പോയി എക്സ് റേ എടുത്തു കൊണ്ടു വരാൻ പറയും അപ്പോൾ അതിനായിട്ടുള്ള അഡീഷണൽ പൈസ ആൾക്കാർ ചിലവാക്കേണ്ടി വരുന്നു ഇതൊക്കെയാണ് നമ്മുടെ സംരക്ഷണവിധാനത്തിൻ്റെയുള്ള വെല്ലുവിളികൾ